ജോലി സ്ഥലത്ത് എനിക്ക് പറ്റിയ തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻന്ന് വെച്ച അക്കൗണ്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യായിട്ട് ഞാനൊരു സ്ഥാപനത്ത് പോയപ്പോൾ എന്തവെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റെടുത്തൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടാലിയാണ് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എങ്ങനെ കണക്കുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപൻ്റെയൊരു കണക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരായിട്ട് ടെൻഷൻ അടിച്ചു കാരണം അത്രേം ദിവസം ജോലിചെയ്തിട്ട് എനിക്ക് അങ്ങനൊരു പ്രശ്നം വന്നില്ല അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ മുതലാളിക്ക് അതായത് ലാപ്പിൽ അതായത് നമ്മൾ ലാപ്പിൽ ലാപ്പിൽ അല്ല കമ്പ്യൂട്ടറിലുള്ളതും പിന്നെ നമ്മുടെ കൈയ്യിലുള്ള പൈസയും നമുക്ക് ടാലിയായിട്ട് കാണിച്ചുകൊടുക്കണം പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പൈസയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതിവെച്ചിട്ട് അതൊക്കെ കാണിച്ചുകൊടുത്ത് അതൊക്കെ ഇട്ട് അതൊക്കെ എഴുതിയിട്ടുവേണം നമ്മൾ ടാലിയാക്കാൻ ആ പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി കാരണം അഞ്ഞൂറ് രൂപയല്ലേ അപ്പോൾ അഞ്ഞൂറു രൂപയൊക്കെ അഞ്ഞൂറുരൂപയാണ് എങ്കിലും നമ്മളത്രെയും എന്നെ അത്രയും വിശ്വാസമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഞാൻ കുറെ ടെൻഷൻ അടിച്ചു അപ്പോളാണ് എന്നോടുവന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞു സാറെ എനിക്കിങ്ങനെ ഒരു അഞ്ഞൂറു രൂപൻ്റെ ഒരു പ്രശ്നമിണ്ട് അപ്പം അപ്പെന്നോട് പറഞ്ഞു ആ പിന്നെ നീ ഒന്ന് ഒന്നുകൂടി ചിന്തിച്ചുനോക്ക്ന്ന് പറഞ്ഞു തമാശ പറഞ്ഞതാണ് അപ്പം ഞാൻ സാറിന് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ഞൂറു രൂപ അതായത് ഇത് കഴിയുന്നതിനുമുന്നെ അഞ്ഞൂറ് രൂപ സാറ് എടുത്തിട്ടിണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ കുഴപ്പമൊന്നുല്ല നമ്മൾ നല്ല കമ്പനിയായിട്ട് ഇതായി